ചേട്ടാ ഈ സമയത്തൊന്നും ആരും ഓട്ടോ വിളിച്ചാലൊന്നും വരില്ല ചേട്ടൻ വിളിച്ചപ്പൊഴേയ്ക്കും വരാൻ കാണിച്ചതിന് ഒരുപാട് നന്ദി ഇത്ര വൈകിയത് കൊണ്ട് പേടിച്ച് നിൽക്കുവായിരുന്നു ഒരു ബെസ്സും ഒന്നും ഇല്ലാതെ ഇവിടെ ചുറ്റും ആളുകളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു നല്ല പേടിച്ച് നിൽക്കുവാരുന്നു ചേട്ടൻ എന്തായാലും സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിച്ച് തന്നല്ലോ എങ്ങനെ നന്ദി പറയണം എന്ന് അറിയില്ല ഈ സമയത്തൊന്നും ആരും ഓട്ടോ വിളിച്ചാലൊന്നും വരില്ല സമയം ഒരുപാട് വൈകിയതുകൊണ്ട് ഒരുപാട് വണ്ടികള് വിളിച്ച് നോക്കി ആരും നിർത്തിയൊന്നുവില്ല ചേട്ടനാണ് കൈ കാട്ടിയപ്പളേക്കും നിർത്തിയത് ഒരുപാട് നന്ദി വീട്ടുകാരെല്ലാം പേടിച്ചിരിക്കുകയായിരുന്നു ചേട്ടൻ സുരക്ഷിതമായിട്ട് ഇവിടെ കൊണ്ടെത്തിച്ചല്ലോ എങ്ങനെ നന്ദി പറയണം എന്ന് അറിയില്ല ഒരുപാട് നന്ദിയുണ്ട് ചേട്ടാ